പ്രയോജനപ്പെട്ടിട്ടുള്ള ചില സർക്കാർ പദ്ധ്യതീന്നക്കെ പറയുമ്പോൾ അതിനൊരുദാഹരണമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് വച്ചാൽ ഈ വീടില്ലാത്തവർക്ക് നാല് ലക്ഷം രൂപ വരെ ധനസഹായമൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അറുപത് വയസ്സ് പ്രായമായവർക്ക് ഈ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഗവണ്മെന്റ് പിന്നതുപോലെ സർക്കാർ കെട്ടിടം നിർമ്മാണ തൊഴിലാളികൾക്കും കാർഷിക തൊഴിലാളികൾകൊക്കെ ഈ ക്ഷേമ നിധി പോലുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെ ജോലി ഇല്ലാത്തവർക്കും അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ പിന്നെ പറയണ ഒരു സ്കീംന്ന് പറയണത് സുകന്യ യോജനയാണ് അതെന്ന് പറയുമ്പോൾ ഈ പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ് ഉള്ള പ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഈ പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കുന്നൊരു സ്കീം ഇതാണത് അവരുടെ പഠനച്ചിലവിനും അതുപോലെതന്നെ മറ്റാവശ്യങ്ങൾക്കൊക്കെയാണത് ലഭിക്കണത് തന്നെ അങ്ങനെ ഗവണ്മെന്റ് ഓരോ പാവപ്പെട്ട ജനങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ ഓരോ ധനസഹായങ്ങളൊക്കെ ഗവണ്മെന്റിൻ്റെ ഒരു സ്കീമിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പറയാനാണെങ്കിൽ ആയുഷ് മെഡിക്കൽ ക്ലെയിം അത് ഈ അഞ്ച് ലക്ഷം വരെ മെഡിക്കൽ ചിലവിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുണൊരു സ്കീമാണത്